ഞാനേ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണെ ഗൾഫില് ഇൻഡ്യയിലെ റബ്ബർ കൃഷിയെ കുറിച്ച് അത് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് കേരളത്തിൽ വന്നിട്ടുള്ളതാണ് ഇൻഡ്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതല് റബറ് ചെയ്യുന്നേന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെയൊന്നും എനിക്കറിയത്തില്ല എന്താണെന്ന് ഞാൻ കണ്ടിട്ടുവില്ല കേട്ടിട്ടുവില്ല റബറ് വസ്തുക്കള് ഞാൻ ഉപയോഗിച്ചിട്ട് മാത്രമേയുള്ളു എനിക്കതെകുറിച്ച് കൂടുതല് കാര്യങ്ങള് അറിയണം പറഞ്ഞ് തരണം

അതൊക്കെ പാലാ കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുന്നത് എവിടെയാണ് ഏത് ജില്ലയാണ് അത് കേരളത്തിലെവിടെയാ ആ കോട്ടയത്ത് ഉം ആ ഉണ്ട് എൻ്റെ കൂടെ ആളുണ്ട് ആ അങ്ങനെ പാലെടുക്കുന്ന പരിപാടി അതെന്തുവാ പാലെടുക്കുക അതെങ്ങനെയാണ് അതെടുക്കുന്നത് ഇലയിൽ ഇലയിൽ നിന്നാണോ ഇലയിൽ നിന്നാണോ ഞങ്ങളൊര് രണ്ടാഴ്ചക്കുള്ളിലെത്തും അപ്പം ഞങ്ങൾക്ക് റബ്ബറിനെ കുറിച്ച് മാത്രമല്ല അവിടെ ഞങ്ങൾക്ക് എൻജോയ്മെൻറ്റിനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലൊ എല്ലാ ഫെസിലിറ്റിസും ഉള്ള ഞങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഓക്കെ ഓക്കെ അപ്പം എല്ലാ സഹായവും ചെയ്ത് തരുമല്ലോ അല്ലേ ഉം ആ എന്നാൽ ശരി ഞങ്ങളിപ്പം താസിയാതെ എത്തിക്കോളാം ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്തോളാം ഉം ശരി എന്നാൽ